കോഴിക്കോട് ജില്ലയിലെ നമ്മൾ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക ഉത്സവം അല്ലെങ്കിൽ പരിപാടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മതപ്രതീക്ഷകമായിട്ടും മതങ്ങളുമായി ബന്ധപ്പെട്ട കു റേ പരിപാടികൾ നമ്മൾ കോഴിക്കോട് ജില്ല ആഘോഷിക്കാറുണ്ട് ആൾക്കാർ എന്താ പറയുക അത് ആഘോഷിക്കുന്നത് ഒക്കെ നമുക്ക് ഓരോ മാസ കണക്കിനാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക വാർഷിക കഥകളി ഉത്സവം ഉണ്ടാകും കോഴിക്കോട് പുഷ്പമേള അങ്ങനെ ഈദ് എന്താ പറയുക അതുപോലെ തന്നെ എന്താ പറയുക ബീച്ചിൽ കോഴിക്കോട് ബീച്ചിലോരോ ഓരോ ഒരു ഫെബ്രുവരി ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ വേറെ ഈ ഫെസ്റ്റിവൽ പോലത്തെ പരിപാടികളൊക്കെ നമുക്കവിടെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്താ പറയുക നമുക്ക് കഴിക്കാൻ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് എന്താ കഴിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക അവിടെ നമുക്ക് ചോറ് അതുപോലെ തന്നെ ബിരിയാണി അങ്ങനെ കുറേ സാധനം നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഉത്സവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർഷിക കഥകളി ഉത്സവമാണ് പിന്നെ കോഴിക്കോട് പുഷ്പമേള ഇതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു പോയിരിക്കുന്ന ഉത്സവം എന്ന് പറയുന്നത് ഇതാണ് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും എന്താ പറയുക പ്രധാനമായിട്ടും ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവങ്ങളും പരിപാടികളും എന്നൊക്കെ പറയുന്നത്